ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനത്തെ അതായത് ഇപ്പം ആയുർവേദം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റലുകളിലെന്നൊക്കെ പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മരുന്നാണ് കൂടുതലായിട്ടും നൽകുന്നത് ഇംഗ്ലീഷ് മരുന്നെന്ന് നമ്മൾ കൂടുതലായിട്ടും കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ കൂടുതലാണ് നമുക്ക് ഇപ്പം എന്തെങ്കിലും വൈകല്യങ്ങളോ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി കൂടുതലും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും എന്തെങ്കിലും ചെ ഇപ്പോൾ ചെറിയ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആയുർവേദങ്ങളോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഹോമിയോ ഹോമിയോ ആണ് കൂടുതലായും ചെയ്യുന്നത് അല്ലാത്തവർ ഇങ്ങനെ ആയുർവേദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒടിവോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ഈ ആശുപത്രികളിൽ പോകാണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം പച്ചമരുന്ന് കാര്യങ്ങളൊക്കെ വെച്ചു കെട്ടിയാൽ തന്നെ ഒരു രണ്ടോ രണ്ടാഴ്ച്ച നമ്മൾ കൂടുതലായിട്ട് കിടക്കേണ്ടി വരികയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എണീറ്റ് നടക്കാനുള്ള ഒരു പൂർവ്വ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഒക്കെ എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നെ ഹോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജന്മം തൊട്ടേ കാണിച്ച് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പിടിക്കുകയുള്ളു അങ്ങനത്തെ ഒരു പ്രശ്നം ഹോമിയോക്കുണ്ട് പക്ഷെ ഹോമിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു മരുന്നാണ് എന്താ പറയുക സൈഡ് എഫ്ഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മരുന്നാണ് ഹോമിയോ എന്നു പറഞ്ഞാൽ